നമ്മുടെ സംസ്ഥാനത്തും പ്രദേശത്തും മൊത്തമായിട്ട് ഈ കായിക വികസനത്തിന് വേണ്ടി ഓരോ സംഘടനകൾ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തനങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ കളിക്കാൻ താല്പര്യമുള്ള മക്കൾക്ക് കളിക്കാൻ താല്പര്യം ഉണ്ട് എന്നാൽ കളിക്കാൻ അതിനുള്ള ആവശ്യ സാധനങ്ങൾ ഇല്ല എന്നുള്ള കുട്ടികൾക്കാണെങ്കില് അവര് അവരോരോത്തരേയും വിളിച്ച് കൂട്ടുകയും അവരെ എന്താ പറയുക അവർക്കാവശ്യമായിട്ടുള്ള വസ്തുക്കൾ നൽകിയിട്ട് അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കില് ഇപ്പോൾ കളിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടി ആണെങ്കില് അവർക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ആ ഒരു കളി പരിശീലിപ്പിച്ച് കൊടുക്കുന്നു അങ്ങനെ ആ മക്കൾക്ക് ഒരുപാടൊരുപാട് കളികൾ പഠിക്കുവാനും അല്ലെൽ ആ ഒരു ആ ഒരു വ്യക്തിത്വ മത്സരത്തിൽ ആ ഒരു കായികമേഖലയിൽ അവർക്ക് നൈപുണ്യം നേടുവാനും അവർക്ക് സാധിക്കുന്നു ഇപ്പോൾ ഒരു കുട്ടിക്ക് ഫുട്ബോളാണ് കളിക്കാൻ ഇഷ്ടമെങ്കില് നമ്മുടെ കായിക നമ്മുടെ ഇങ്ങത്തെകൂട്ട് നമ്മുടെ സർക്കാർ കേന്ദ്രികൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ സംഘടനകള് അവര് അതിനാവശ്യമുള്ള അതിനാവശ്യമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് കൊടുക്കുന്നു ഉദാഹരണം പറയാണെങ്കില് ഇപ്പം ഒരു കുട്ടിക്ക് ഫുട്ബോള് കളിക്കാൻ ഇഷ്ടമെങ്കില് ആ കുട്ടിക്ക് ഫുട്ബോള് കളിക്കാൻ അങ്ങനെ ഒരു മക്കളെ അവര് തിരഞ്ഞു കണ്ടുപിടിക്കുകയും അങ്ങനെ ഒരുപാട് പേരെ കളിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരെ തിരഞ്ഞു കണ്ടുപിടിക്കും എന്നാൽ അവർക്കതിനുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ അതിനുള്ള പൈസയോ ഒന്നും ഇല്ലെങ്കില് അവരെ ഫ്രീ ആയിട്ട് അവർക്ക് വേണ്ടി ഇങ്ങത്തൂട്ട് ഒരുപാട് ഒരുപാട് ക്യാമ്പെയ്നുകള് നടത്തുകയും ഓരോ ക്യാമ്പ് അല്ലെങ്കില് ഫുട്ബോള് അക്കാഡമി തുടങ്ങുകയും ഇങ്ങനെ ഈ പിള്ളേരെ വിളിച്ച് കൂട്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഇവരെ ഫുട്ബോള് കളിപ്പിക്കുകയും ചെയ്യുന്നു അപ്പഴ് അവിടെ കൂടാണ്ട് അവർക്കാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഫുടബോളാണെങ്കിലും അവർക്കാവശ്യമുള്ള ബൂട്ട് ആണെങ്കിലും ഇതൊക്കെ ഈ പിള്ളേർക്ക് ഇവര് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ എന്തായി ഓട്ടോമാറ്റിക്കലി അത് അപ്പം എന്തായി അത് ഇവരുടെ ഈ പിള്ളേർക്ക് വികസനത്തിന് വേണ്ടി അവരുടെത് പ്രവർത്തനമായി അപ്പോൾ ഇങ്ങനത്തൂട്ട് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു ചൊല്ലുണ്ട് നമ്മള് എന്തെങ്കിലും പൈസ ഉള്ളവർക്ക് മാത്രേ എന്തേലും ഒക്കെ നേടാനാവുള്ളൂ ഇല്ലാത്തവർക്ക് നേടാൻ പറ്റില്ല എന്നൊള്ള ഒരു ഒരു ഒരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ഈ ചിന്താഗതി മാറ്റുവാൻ ഇത് ഒരുപാട് ഒരുപാട് സഹായിക്കുന്നു ഇങ്ങനൊരു പിന്നോക്ക വിഭാഗത്തിലുള്ള മക്കളെ ഇവര് തിരഞ്ഞ് കണ്ടുപിടിക്കും ഇവർക്കാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇവർ ഉയരങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ ഇവർ ഒരുപാടൊരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരികയും സാധിക്കും അത് കൂടാഞ്ഞ് ഒരുപാട് ഗേയ്മുകൾ ഒരുപാട് എന്താ അവസരങ്ങൾ ഈ പിള്ളേർക്ക് കിട്ടുന്നുണ്ട് ഓരോരോ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് മുതൽ മത്സരങ്ങളിൽ ഇങ്ങനെ ഓരോ മത്സരങ്ങൾ നടത്തിക്കും അങ്ങനെ ഒരുപാടൊരുപാട് സെലെക്ഷൻ ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്യുന്നു അങ്ങനെ കഴിവുള്ള മക്കൾ കടന്ന് വരുമ്പഴ് അവരുടെ കഴിവിനെ മനസ്സിലാക്കിയിട്ട് ഇവരെ തിരഞ്ഞെടുക്കുകയും ഇവരിങ്ങനെ ഇങ്ങനെ നിന്ന് പോയാൽ പോരാ അവർക്ക് ഇനിയും ഒരുപാട് പരിശീലനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരുപാട് ഒരുപാടൊരുപാട് ഉയരങ്ങളിലേക്കെത്താൻ സാധിക്കുമെന്ന് ഇവർ മനസ്സിലാക്കുന്നു അങ്ങനെ ഒരുപാടൊരുപാട് അവസരങ്ങൾ ഇവർ നടത്തുന്നു ഇങ്ങനെ ഉള്ള മക്കളെ തിരഞ്ഞ് കണ്ടു പിടിക്കുകയും അവർക്ക് എന്താ പറയുക ഒരുപാട് പരിശീലനം നൽകിയിട്ട് ഇവർക്ക് ഒരുപാടൊരുപാട് അവസരങ്ങൾ ഒരുപാടൊരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നു കൂടാണ്ട് നമ്മൾ പ്രദേശത്ത് ഇങ്ങനെ ഉള്ള സംഘടനകൾ ഓരോരോ മത്സരങ്ങൾ നടത്തുന്നു ഇങ്ങനെ മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരുപാടൊരുപാട് ആൾക്കാര് അവിടെ വന്ന് ചേരുകയും അങ്ങനെ ആ ഒരു കായിക മത്സരത്തിന് അവര് പ്രാധാന്യം നൽകുകയും കൂടാണ്ട് ഒരുപാട് മക്കൾക്ക് അത് കളിക്കാനും കാണുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു കൂടാണ്ട് അവർക്ക് ഈ പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള സാധന വസ്തുക്കൾ ബൂട്ടാണെങ്കിലും ഫുടബോളാണെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നു പിന്നെ അവർക്കൊരു സ്ഥലത്ത് കളിക്കാൻ സ്ഥലമില്ലെങ്കില് ഈ സംഘടനകൾ അവിടെ വന്നിട്ട് അവർക്ക് കളിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഗ്രൗണ്ടിലെങ്കിൽ അവർക്കൊരു ഗ്രൗണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ കളിക്കാൻ വസ്തുക്കളിലെങ്കിൽ അങ്ങനത്തെകൂട്ട് വസ്തുക്കൾ കൊടുക്കുന്നു അങ്ങനെ ഒരുപാടൊരുപാട് സഹായങ്ങൾ ഇവര് ചെയ്യുന്നുണ്ട് ഇതുവഴിയായിട്ട് പിള്ളേർക്ക് കൂടുതൽ കൂടുതല് എന്താ പറയുക വളരുവാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു ഒരു കുട്ടിക്ക് അവൻ്റെ ജീവിത സാഹചര്യം വഴിയായിട്ട് കായികമത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കില് ആ ഒരു കായിക മേഖലയില് വളരാൻ സഹായിക്കുന്നില്ലെങ്കിൽ ഇവർ ആ ഒരു ആ ഒരു കുട്ടിനെ സഹായിക്കും അങ്ങനെ ഇവനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും പ്രയത്നിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കായിക സംഘടനകൾ വഴിയായിട്ട് നടക്കുന്നുണ്ട് ഈ പ്രവർത്തങ്ങൾ ഇവർ സർക്കാരിൻ്റെയോ അങ്ങനെ ഒന്നിൻ്റെയും ലാഭത്തെ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല അല്ലെങ്കിൽ ഇവർക്ക് ഇതിലൊന്നും കിട്ടിയിട്ടില്ല അതിലുപരി ഈ ഓരോ മക്കളുടെയും കായികമായിട്ടുള്ള വളർച്ചയും കായികമായിട്ടുള്ള വളർച്ചയും കണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ ഇവർ ചെയ്യുന്നത് വഴിയായിട്ട് ഒരു ഒരുപാട് ഒരുപാട് നേടുവാനും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്കെത്തുവാനും അങ്ങനെ ഇവർക്ക് ജീവിതത്തിൽ വിജയം നേടുവാനും ഈ സംഘടനകൾ സഹായിക്കുന്നു അത് കൂടാനായിട്ട് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ അവസരങ്ങളിലും ഇവർക്ക് അവശ്യമായിട്ടൊള്ള ഓരോ മത്സരങ്ങൾ നടത്തുന്ന വഴിയായിട്ട് കൂടുതൽ മക്കളിലേക്ക് ഇത് ഈ ഒരു കായികം മേഖല എത്തുകയും കൂടുതൽ പിള്ളേർക്കും ഇതിലൂടെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഇല്ലെങ്കിൽ ഒരുപാടൊരുപാട് പരിശീലനം ലഭിക്കാൻ അവർക്ക് അവസരം കിട്ടുകയും ചെയ്യുന്നു പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് എന്താ പറയുക പൈസ കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് സഘടനകളുണ്ട് അതിനേക്കാൾ ആ ഒരു സംഘടനകൾ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സംഘടനകള് ചെയ്യുന്നുണ്ട് കൂടാണ്ട് ഇപ്പം ഒരു സ്റ്റേഡിയം ഒരു ഗ്രൗണ്ട് മോശമാണെങ്കില് ഇവർ അവിടെ ഗവൺമെൻറ്റിന് പരാതിയോ അല്ലെങ്കില് അത് നന്നാക്കാനുള്ള എന്തെങ്കിലും അപേക്ഷകൾ ഗവൺമെൻറ്റിന് കൊടുത്ത് അങ്ങനെ ആ ഒരു കെട്ടിടം ആ ഒരു ആ ഒരു സ്റ്റേഡിയംആണെങ്കി ആ സ്റ്റേഡിയം നന്നാക്കുവാനും അങ്ങനെ ഒരുപാട് മക്കൾക്ക് അവിടെ വീണ്ടും പഠിച്ചുയരാൻ അങ്ങനെ അവസരങ്ങൾ ഒരുപാടവസരങ്ങൾ ഈ സംഘടനകൾ വഴിയായിട്ട് ഓരോ മക്കൾക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പം നമുക്ക് തീർത്തും പറയാൻ പറ്റും നമ്മുടെ നമ്മുടെ സർക്കാര് സർക്കാർ സർക്കാരിൻ്റെ ലാഭയം ഇല്ലാത്ത സംഘടനകൾ ഒരുപാട് വിധത്തിൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും അതിന് ഓരോ അതിന് ഓരോ അതിന് തെളിവാണ് നമ്മൾ ഓരോരുത്തരെയും സമൂഹത്തിലുള്ള സംഘടനകള് ഇതേപോലത്ത സംഘടനകൾ ഇനിയും ഉണ്ടാകട്ടെ